കടലും മലയും പുഴയും വെള്ളച്ചാട്ടങ്ങളുമെല്ലാം സഞ്ചാരികളുടെ മനസ്സിന് കുളിർ കോരുന്നവയാണ് എന്നാലൊരു നിമിഷത്തെ അശ്രദ്ധ ഈ സന്തോഷങ്ങളെ സങ്കടങ്ങളാക്കി തീർക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് സഞ്ചാരികൾക്ക് അതിനാൽ പ്രത്യേക നിർദ്ദേശം നൽകാറുണ്ട് അപകട സധ്യതയുള്ള ടൂറിസ്സ കേന്ദ്രങ്ങൾ പ്രത്യേകം കണ്ടെത്തി പരിശീലനവും ജീവൻ രക്ഷ ഉപകരണങ്ങളും നൽകുന്നുണ്ട് ഞങ്ങളുടെ പ്രദേശത്ത് ലൈഫ് ഗാർഡുകളുടെ സേവനം ഉറപ്പാക്കുന്നുണ്ട് എന്തെങ്കിലും അത്യാഹിതങ്ങൾ സംഭവിച്ചാൽ ആശ്വാസനടപടികൾ കൈകൊള്ളുന്നതിന് വേണ്ടി അത്യാഹിത സെല്ലുകൾ രൂപീകരിച്ചിട്ടുണ്ട് എന്തെങ്കിലും സംശയങ്ങൾ ഒഴിവാക്കാനായി സെക്യൂരിറ്റി ഗാർഡിനെ നിയമിച്ചിട്ടുണ്ട് പിന്നെ ട്രക്കിങ് ഉണ്ട് അത് വിനോദസഞ്ചാരികളുടെ സന്തോഷത്തിനായി വെച്ചിരിക്കുന്നതാണ് അപകടസാധ്യത കേന്ദ്രങ്ങളെക്കുറിച്ച് പ്രത്യേക മുന്നറിയിപ്പുകൾ നൽകാറുണ്ട് പിന്നെ അവിടുത്തെ കാഴ്ചകളെ കുറിച്ച് ഒര് ബോർഡ് നിർമ്മിച്ചിട്ടുണ്ട് സഞ്ചാരികൾക്ക് കൺഫ്യൂഷൻസ് ഒരുപാട് കാണും അതൊക്കെ ഒഴിവാക്കാനായിട്ടാണ് വെച്ചിരിക്കുന്നത് ടൂറിസ്സം കേന്ദ്രങ്ങളിൽ പ്രത്യേക പരിശീലനം ലഭിച്ച ടൂറിസ്റ്റ് പോലീസിൻ്റെ സേവനം ലഭ്യമാക്കും മാർഗ്ഗനിർദ്ദേശങ്ങൾ കൊടുക്കുകയും ചെയ്യും ഇതൊക്കെയാണ് ഞങ്ങളുടെ പ്രദേശത്ത് വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നതിനായി ചെയ്യുന്ന കാര്യങ്ങൾ